ഞാന് കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ കസവിൽ നിന്ന് എടുത്തെടീ അതിന് ആകെ ആയിരത്തി അഞ്ഞൂറുപ്യ ആയിട്ടുള്ളു കേട്ടോ കണ്ടാൽ മൂവായിരം റുപ്യന്റെ മൂവായിരം റുപ്യന്റെ ഒരു കാണാന് നല്ല ഒരു ക്വളിറ്റി ഉണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞു ച്ച്ട്ടിട്ട് നല്ല രസമുണ്ടെന്ന് അത് ആ ചുരിദാറിന്റെ കളർ ഒരു നീലയാണ് നീല ഇട്ടിട്ട് നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് ചെയ്തു ഞാൻ എന്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു എടീ അത് ഞാന് അത് ഇപ്പോൾ ഒരു വട്ടം ഇട്ട് തിരുമ്പി അത് കളര് ഇളകുന്നൊന്നുമില്ല കേട്ടോ പുതിയ പുതിയ പോലെ തന്നെ ഉണ്ട് കളർ ഇളകുന്നൊന്നുമില്ല ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പിന്നെ അടുത്തുള്ള താത്താന്റെ അടുത്ത് തന്നേ അത് അടിക്കാന് കൊടുത്തത് അടിച്ചതും നല്ലോണം നന്നായിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ഒരു പാകത്തവർക്കുന്ന സിമ്പിളാണ് തോന്നുകയും ചെയ്യും അങ്ങനെ ഓവറായിട്ട് വര്ക്കൊന്നുമില്ല അങ്ങനെ സിമ്പിളായിട്ടുള്ള വര്ക്കുമാണ്